എനിക്കേറ്റവും ഇഷ്ടമുള്ള പത്രമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃഭൂമിയാണ് പിന്നെ അത് ഞാൻ കുറെ എനിക്ക് ഞാനെപ്പോൾ വായിച്ചാലും തിരഞ്ഞെടുത്തു വായിക്കുന്നൊരു പത്രമാണ് മാതൃഭൂമി അതുപോലത്തന്നെ ഞാൻ വായിച്ചുനോക്കിയിട്ടുള്ളൊരു പത്രമാണ് ദേശാഭിമാനി അതെനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പത്രമാണ് കാരണം ഞാനത് വായി ഞാൻ എനിക്കത് വായിക്കാൻ താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അന്നന്ന് നടന്ന കാര്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്നറിയണം അതാണ് അങ്ങിനെയാണ് നമ്മൾ കാലത്തിനനുസരിച്ച് പുരോഗതി കൈവരിക്കുന്നത് പക്ഷേ ഈ ദേശാഭിമാനിയെന്ന് പറഞ്ഞ പത്രത്തിന് എല്ലാ വാർത്തകളും ലേറ്റായിട്ടാണ് വരിക ഇപ്പം ഇന്ന് നടന്ന കാര്യം ചിലപ്പം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിലച്ചടിച്ച് വരുന്നത് അപ്പം നമ്മള് ഈ വാർത്തകളറിയാൻ ഭയങ്കര ലേറ്റാവുന്നുണ്ട് പക്ഷേ നമുക്ക് മാതൃഭൂമി പത്രമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം മൂന്ന് മണിക്ക് ഉള്ളിൽ നടന്ന ഏതൊരു വാർത്തയാണെങ്കിലും അതെല്ലാം നമുക്ക് പിറ്റേദിവസത്തെ പത്ര പത്രത്തില് അച്ചടിച്ച് വരുന്നുണ്ട് അപ്പൊൾ നമുക്ക് കാലത്തിനനുസരിച്ച് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഈ മാതൃഭൂമിയോടൊരു താല്പ്പര്യം തോന്നുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാർത്തകളൊക്കെ അറിയാൻ പറ്റും അതുപോലത്തന്നെ കാലത്തിനനുസരിച്ചു മുന്നോട്ട് സ് നീങ്ങാൻ കഴിയുന്നുണ്ട് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് എന്നാൽ ദേശാഭിമാനിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് കാലത്തിനനുസരിച്ചു ഒന്നും മനസ്സിലാക്കാനോ അതിനൊന്നും പറ്റുന്നില്ല കാരണം അതില് പത്ത പത്രവാർത്തകള് വരുന്നത് വളരെ അപൂർവ്വമായിട്ട് ഭയങ്കര താമസിച്ചൊക്കെയാണ് വരാറ് അപ്പം നമുക്ക് എന്താ പറയുക പെട്ടെന്ന് നടന്നൊരു കാര്യം നമുക്ക് പെട്ടെന്നറിയാനൊന്നും കഴിയില്ല അതുകൊണ്ടെനിക്ക് തീരെ ഇഷ്ടല്ല അതുകൊണ്ട് ഞാനതു വായിക്കാറില്ലത് കൂടുതലായിട്ട് ഞാൻ വായിക്കുന്നത് മാതൃഭൂമിയാണ്